അതെ ഞാൻ ഈ അടുത്ത കാലത്ത് ഓൺലൈനിൽ നിന്ന് ഒരു ചാർജർ ഓർഡർ ചെയ്തായിരുന്നു എണ്ണൂറ് രൂപയായിരുന്നു അതിൻ്റെ വില ഫോൺ ചാർജ് ചെയ്തപ്പോൾ സാധാരണ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറും കൊണ്ടൊക്കെ ഫുൾ ആവേണ്ടതാണ് പക്ഷേ ഈ ഫോൺ ചാർജ് ചെയ്തപ്പോൾ ഒരുപാട് താമസിച്ചാണ് ചാർജ് കേ കയറിയതും ഒരു നാലുമണിക്കൂർ എങ്കിലും എടുത്തായിരുന്നു പക്ഷേ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഓർഡർ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഭയങ്കര താമസമാണ് എനിക്കെന്തായാലും ഇഷ്ടമായില്ല